പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതുവാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ലാപ്ടോപ്പ് മൊബൈൽ സിസ്റ്റത്തിൽ കൂടി എഴുതുമ്പോൾ എനിക്ക് ലഭിക്കാറില്ല ഒരു പക്ഷെ ഞാനൊരു സീനിയർ സിറ്റിസൺ ആയതു കൊണ്ടായിരിക്കാം പേപ്പറിൽ പരമ്പരഗരായ പരമ്പരാഗതമായ രീതിയിൽ മുമ്പ് ഇങ്ക് പെൻ വെച്ച് എഴുതി ശീലിച്ചിരുന്നു ഇപ്പോൾ ഇങ്ക് പേന വെച്ചെഴുതുന്ന ശീലത്തിൽ നിന്നും ബോൾ പെൻ വെച്ചെഴുതുന്ന ശീലത്തിലോട്ടു മാറി കൂടുതലും മലയാളവും ഇംഗ്ലീഷിലും ആണ് എഴുതുവാറുള്ളത് മുൻതലമുറക്കാർ എന്നെ പോലെ ഉള്ള സീനിയർ സിറ്റിസൺസായിട്ടുള്ള ആൾക്കാർ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്നത് പേപ്പറിൽ എഴുതി ഉള്ള ശീലമാണ് ആശയ വിനിമയങ്ങൾക്ക് ആയി പേന ഉപയോഗിച്ച് പേപ്പറിൽ തൂലിക ചലിപ്പിക്കുമ്പോൾ കൂടുതൽ സൃഷ്ടിപരമായ രീതിയിൽ എഴുത്തിനെ രൂപപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതൊരു സത്യമാണ് എങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ ഇൻഫ്ലുവെൻസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പെന്നും പേപ്പറും ഉപയോഗിച്ചെഴുതുന്ന ഒരു തൊപ്പ്യനായി കാണുന്നവരാണ് യുവ തലമുറ

ഡെസ്ക് ടോപ് ഇവയിൽ എഴുതുന്നതിലാണ് അവർക്ക് താല്പര്യമോ അവർ കംഫർട്ടബിളും പഴയ തലമുറക്കാർ പേന ഉപയോഗിച്ച് പേപ്പറിൽ എഴുതി തൃപ്തി അടയുമ്പോൾ ഒരു വിഭാഗം പഴയ തലമുറക്കാരും മുഴുവൻ യുവ തലമുറക്കാരും ലാപ്ടോപ്പിലും മൊബൈലിലും ഡെസ്ക് ടോപ്പിലും എഴുതി സൃഷ്ടികർമ്മ എസ് ക്രീയേറ്റീവിറ്റി അവർ അതിൽ സംതൃപ്തി അടയുന്നു രണ്ടിനും അതിൻറ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട് ഒരു എഴുത്ത് എന്നു പറയുമ്പോൾ എഴുതുന്ന ആളുടെ സംതൃപ്തി അവിടെ ഏറെ നിർണ്ണായകമാണ് അപ്പോൾ പേനയും പേപ്പറുമുപയോഗിച്ച് സീനിയ മുൻ തലമുറക്കാരെഴുതിയാലും ലാപ്ടോപ്പിലോ മൊബൈലിലോ ഡെസ്ക് ടോപ്പിലോ പുതിയ തലമുറക്കാർ സീനിയറായിട്ടുള്ള ആൾക്കാരെഴുതിയാലും എഴുതുന്ന ആളുടെ തൃപ്തി ഏറെ നിർണ്ണായകമാണ് വായനക്കാരൻ അത് ആസ്വദിക്കും കൂടുതലും വായനക്കാറും ഇന്ന് ലാപ്ടോപ്പിലും ഡെസ്ക് ടോപ്പിലും മൊബൈലിലുമൊക്കെ വായിക്കുന്നതിലാണ് സംതൃപ്തി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എഴുത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നതെല്ലാം നമ്മൾ കാണുന്ന സൃഷ്ടികളെല്ലാം ലാപ്ടോപ്പിലോ മൊബൈലിലോ ഡെസ്ക് എവ്ഹുതി പ്രസിദ്ധീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മൾ വായിക്കുന്നതെല്ലാം പേന കൊണ്ട് പേപ്പറിലെഴുതിയ സൃഷ്ടികൾ വായിക്കുന്നതു വളരെ കുറവ് വന്നിരിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് കടന്നു പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷെ ഒരു പത്ത് അധിക കാലഘട്ടമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല ഒരു പത്ത് വർഷം കൂടി കഴിയുമ്പോൾ ഒരു പത്ത് പേജ് പേപ്പറിൽ പേന കൊണ്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ നമുക്ക് വായിക്കണമെന്നു വിചാരിച്ചാൽ പഴയ പേപ്പറുകൾ തപ്പി നമ്മൾ വായന ആ ആഗ്രഹം സഫലീകരിക്കേണ്ടി വരും ഇതാണ് പേന ഉപയോഗിച്ച് പേപ്പറിൽ എഴുതുന്നതും ഡെസ്ക് ടോപ്പ് ലാപ്ടോപ്പും മൊബൈൽ ഈ മാധ്യമം വഴി എഴുതുന്നതും തമ്മിൽ ഞാൻ കാണുന്ന വ്യത്യാസം താങ്ക് യ്യൂ